ആയോധന കല അഭ്യസിക്കുന്ന ഒരു വ്യക്തിക്ക് ചിട്ടയും ആരോഗ്യവും മെയ് വഴക്കവും സിദ്ധിക്കുന്നു അപ്പം അതുവഴി ആ ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവുമായൊരു വളർച്ച ഉണ്ടാകുന്നു പിന്നെ കാര്യങ്ങളെ കാര്യ ഗൗരവത്തോടെയും ദീർഘ വീക്ഷണത്തോടു കൂടീക്കെ കാണാനും സഹായിക്കുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിൽ ഭാവിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാനിത് അഭ്യസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായിട്ട് നല്ല രീതിയിൽ മുന്നേറുവാനായിട്ട് അത് എൻ്റെ ജീവിതത്തിൽ ചിട്ടയും പക്വതയും പിന്നെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു കഴിവും വിശകലനം ചെയ്യാനുള്ള ഒരു കഴിവും എല്ലാം തരുന്നതിനോടൊപ്പം ശരീരത്തെ ആരോഗ്യപരമായി സൂക്ഷിക്കുവാനും ഇതെന്നെ സഹായിക്കുന്നു